ഹലോ ഹലോ ആ ഉണ്ട് പറഞ്ഞോളൂ ആ ഓക്കെ ഓക്കെ സാറ് എന്നത്തേക്കാണ് എത്തുന്നത് രണ്ടാം തീയ്യതി ആ ഓക്കെ അടുത്ത ആഴ്ച്ചയാണല്ലേ ആ ഓക്കെ നാല് പേരല്ലേ ആ ഓക്കെ നമുക്ക് അപ്പം തോൽപ്പെട്ടിയിലേക്കാണെങ്കിൽ അവിടെ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഒരാൾക്ക് അറുന്നൂറ് രൂപ വെച്ചാണ് വരുക ഒരാൾക്ക് അറുന്നൂറ് രൂപ ട്രെക്കിംഗിന് പോകാൻ നമുക്ക് രണ്ടും വരുന്നുണ്ട് ബസ്സിന് ആവുമ്പം നമുക്കൊരു ത്രീ ഹണ്ട്രഡിനൊക്കെ ചെയ്യാൻ പറ്റും

ആ നോർമൽ ജീപ്പ് ഫോർ ഇൻടു ഫോർ വണ്ടിയാണ് അപ്പം നമുക്ക് പോവുമ്പം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂട ട്രെക്കിംഗ് സീസണാണ് സാർ പക്ഷെ എന്താ പറയാ നമുക്ക് മഴയൊക്കെ ആയതോണ്ട് കറക്റ്റ് അങ്ങോട്ട് എന്താ പറയാ ഒരു ഫ്ലെക്സിബിളായിറ്റ് ഇങ്ങനെ പോയിട്ട് വരാൻ പറ്റൂന്ന് തോന്നുന്നില്ല

നമുക്ക് മോർണിംഗ് ഒരു പത്തുമണി ഒക്കെ ആകുമ്പം പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടേൺ വരാം അതൊക്കെ ഞങ്ങളന്നെ അറേഞ്ച് ചെയ്തോളാം ആ പെർ ഹെഡ് അറുന്നൂറ് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് സാറ് ഫാമിലി ആണോ ഫാമിലി ആയിട്ടാണോ വരുന്നത് ഫ്രണ്ട്സ് ആയിട്ടാണ് അപ്പം എറണാകുളത്തുന്ന് അപ്പം സാറ് ഇങ്ങോട്ട് എങ്ങനെയാണ് വരുന്നത് ട്രെയിനിനാണോ വരുക ആ അപ്പം കോഴിക്കോട്ന്ന് എങ്ങനെയാണ് ഞങ്ങൾ പിക്ക് ചെയ്യണോ അതോ സാറ് തന്നെ എത്തിക്കോളോ ആ ഓക്കെ കോഴിക്കോട് അപ്പം എപ്പോഴാണ് എത്തുന്നേന്ന് നോക്കീട്ട് സാറ് നമ്മളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വണ്ടി വിടാം ഏഹ് ആ ഓക്കെ ആണ് നമുക്കിപ്പം നോക്കുമ്പം കാലാവസ്ഥയൊക്കെ കുഴപ്പം ഇല്ല നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്തരാൻ പറ്റും ആ ഓക്കെ സാർ എന്തായാലും നോക്കീട്ട് എന്നത്തേക്കാണ് കറക്റ്റ് കൺഫോമായി നമ്മളെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തരാം ആ എന്തേലും വ്യത്യാസം ഉണ്ടെങ്കിൽ സാർ കോൺടാക്ട് ചെയ്ത് പറയണം കേട്ടോ ആ ഓക്കെ താങ്ക് യൂ സാർ